എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യന് സ്റ്റാമ്പുകളും നാണയങ്ങൾ കല്ലുകൾ എന്നിവ ശേഖരിക്കുന്നതിലേക്ക് നിങ്ങളെ ആദ്യം ആകർഷിച്ചത് എന്താണ് സ്റ്റാമ്പുകളെന്നു പറഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള സ്റ്റാമ്പുകളുണ്ടല്ലോ ഇപ്പം ഗാന്ധിയുടെ പടമുള്ളത് പിന്നെ ശിശുദിനത്തിൻ്റെ പടമുള്ളത് പിന്നെ ജവഹര്ലാൽ നെഹറു പിന്നെ ഇങ്ങനെ എന്താണ് ഓരോരോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റിക്കർ പോലത്തെ സ്റ്റാമ്പുകൾ അങ്ങനെ പല തരം സ്റ്റാമ്പുകളുണ്ട് പണ്ട് ചെറു പ്രായത്തിലൊക്കെ ഞങ്ങൾ സ്റ്റാമ്പുകളുടെ കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു പലതര സ്റ്റാമ്പുകൾ പറന്ന് പല നിറത്തിൽ പല കളറിൽ പല വലുപ്പത്തിൽ പാ അങ്ങനെ പല പല രീതിയിലുള്ള സ്റ്റാമ്പുകൾ ഞങ്ങൾ കളക്റ്റ് കളക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നതിലൂടെ നല്ലൊരു ഹോബിയാണ് സ്റ്റാമ്പ് ശേഖരണം എന്നുള്ളത് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്റ്റാമ്പ് ശേഖരണം അത് ഒത്തിരി നല്ലൊരു ഹോബിയാണ് ഹോബിയെന്നു പറഞ്ഞാൽ അത് ഈ കുട്ടികൾക്കേറ്റവും ഇഷ്ടമുള്ളൊരു ഒരു പരിപാടിയാണ് ഷെ ഇന്നത്തെ കാലത്ത് സ്റ്റാമ്പ് ശേഖരണം നമുക്ക് നടക്കില്ല നമുക്കങ്ങനെ കിട്ടാനില്ല ഇന്നത്തെ കാലത്ത് സ്റ്റാമ്പ് കളക്ഷന് നമുക്ക് കിട്ടില്ല സ്റ്റാമ്പ് കളക്ഷൻ എന്നുള്ളത് ഇപ്പം കിട്ടാൻ പോലും ഇല്ലാത്തൊരു ഒരു സാഹചര്യങ്ങളാണിപ്പോൾ നിലവിലുള്ളത് നാണയങ്ങളെന്നു പറഞ്ഞാൽ നാണയങ്ങൾ ഇഷ്ടം പോലെയുള്ള നാണയങ്ങൾ നമ്മൾ ശേഖരിക്കാറുണ്ട് പണ്ടത്ത് പണ്ട് കാലത്ത് അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ ഇരുപത്തഞ്ച് പൈസ അൻപത് പൈസ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി തുട്ടുകൾ പണ്ടത്തെ കാലത്ത് കൂടുതലുണ്ടായിരുന്നത് ഒരു പൈസ രണ്ട് പൈസ അങ്ങനെയുള്ള അഞ്ച് പൈസ ഈ പത്ത് പൈസ ഇരുപത് പൈസ അങ്ങനെയുള്ള നാണയങ്ങളായിരുന്നു പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അങ്ങനെയുള്ള നാണയങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് ഇന്ന് ഇന്നത്തെ സ് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നാണയങ്ങളെന്നു പറഞ്ഞാൽ കൂടുതലിപ്പോഴുള്ളത് അൻപത് പൈസ ഇപ്പം കാണാനില്ല ഒരു രൂപ ഒരു രൂപ ചുരുക്ക് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ തുട്ട് അങ്ങനെയൊക്കെ തുട്ടുകൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പണ്ടത്തെ നാണയങ്ങളെന്നു പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാനേ ഇല്ല കുട്ടികൾക്കറിയില്ല അഞ്ച് രൂപ പത്ത് രൂ അഞ്ച് പൈസാ പത്ത് പൈസയെന്നൊക്കെ പറയുന്ന തുട്ടുകളുണ്ടെന്നു പറഞ്ഞാൽ പോലും കുട്ടികൾ വിശ്വസിക്കത്തില്ല അത് എന്തു സാധനമാണെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് അഞ്ച് പൈസയും പത്ത് പൈസയും ഒക്കെ അതാണ് നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ നാണയങ്ങളെല്ലാം മാറും നമ്മുടെ നാണയങ്ങളുടെ ഉപയോഗങ്ങൾ മാറുന്നു പിന്നെ ഇപ്പം പുതിയ ഒരു സിസ്റ്റം പുതിയ സർക്കാരും പുതിയ ഭരണ സംവിധാനങ്ങളുമൊക്കെ ആയപ്പോഴേക്കും ഈ നാണയങ്ങൾ പിന്നെ നോട്ടുകളൊക്കെ നാണയങ്ങളായിട്ട് മാറുന്നുണ്ട് ഈ നാണയങ്ങൾ കളഷ് കളേഷ് കളക്ഷനുകൾ കുറവാണ് ഇപ്പം എല്ലാവരും നാണയങ്ങൾ അങ്ങനെ ഒരു ശേഖരിക്കലില്ല എല്ലാവരും നാണയങ്ങൾ പരമാവധി നോട്ടുകളാക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും നാണയങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതി ഇപ്പോൾ കുട്ടികൾക്ക് ഇല്ല കുട്ടികൾക്കല്ലാ മുതിർന്നവർക്കും ഇല്ല ഇപ്പം എല്ലാവരും നോട്ടുകളാണ് നോട്ടുകളാക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതാണ് നാണയ ശേഖരണത്തിൽ ഈ കളക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പം കളക്ഷനുകൾക്കൊന്നും ആർക്കും സമയം ഇല്ല എല്ലാവരും നോട്ടുകൾ ശേഖരിക്കുക പിന്നെ ഇങ്ങനെ ശേഖരിക്കുന്ന പരിപാടി ഇല്ല നോട്ടുകളാണ് മെയിനായിട്ടും ആൾക്കാരിപ്പം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കല്ലുകളെന്നു പറഞ്ഞാൽ പല തരത്തിലുള്ള കല്ലുകളുണ്ട് കല്ലുകൾ നല്ല മിനുക്കമുള്ള കല്ലുകളുണ്ട് നല്ല എന്താ പറയുക നല്ല മിനുക്കമുള്ള കല്ല് നല്ല പാറക്കല്ല് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞ് നല്ല കല്ലുകളൊക്കെ നമ്മൾ ശേഖരിക്കാറു നല്ല ഭംഗിയുള്ള കല്ലുകൾ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും അതെടുത്ത് സൂക്ഷിച്ച് വെയ്ക്കാം കുപ്പികളിലൊക്കെയിട്ട് പിന്നെ കളറടിച്ചും പെയിന്റടിച്ചും അങ്ങനെയൊക്കെ നമ്മൾ കള്ള് കല്ലുകൾ വിൽക്കാറുണ്ട് അതൊക്കെ നല്ലയൊരു എന്താ പറയുക നല്ലയൊരു ഹോബിയാണ് ഈ കല്ലുകൾ ശേഖരിക്കുക നാണയങ്ങൾ ശേഖരിക്കുക സ്റ്റാമ്പുകൾ ശേഖരിക്കുക എന്നിങ്ങനെയൊക്കെ ഉള്ളത് ഈ സ്റ്റാമ്പുകളെല്ലാം ഇത് ഇങ്ങനെയൊരു ഈ ഇങ്ങനത്തെ ഹോബികളൊക്കെ വളർത്തിയെടുക്കുന്നത് നല്ലയൊരു എന്നാണ് പറയുക നല്ല ഒരിതാണ് ഈ സ്റ്റാമ്പ് കളക്ഷനും ഇങ്ങനെ കല്ല് ശേ ഇങ്ങനെയുള്ള ഏതു കാര്യങ്ങൾക്കാണെങ്കിലും ഈ ഇതിങ്ങനെ നമ്മൾ അത് വളർത്തിയെടുക്കുന്നത് നല്ലെയൊരു ഹോബിയാണ് നമ്മുടെ കുട്ടികൾക്കിത് മാതൃകകളാണ് നമ്മളിങ്ങനെയുള്ള കളക്ഷൻ നമ്മൾ പേരന് കാര്ണവന്മാരായിട്ട് ഇങ്ങനെയുള്ള കളക്ഷനുകൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഹോബിയാണ് ഏറ്റവും നല്ല ഹോബിയാണ് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല ഹോബികളാണ് അതാണ് നമ്മൾക്ക് ഏറ്റവും ഉചിതമായി നമ്മൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് സാ സ്റ്റാമ്പ് കളക്ഷനെങ്കിൽ സ്റ്റാമ്പ് കളക്ഷൻ നാണയ കളക്ഷനെ നാണയ കളക്ഷൻ കള്ള് കല്ല് കളക്ഷനേ കല്ല് കളക്ഷൻ ഓരോരുത്തർക്ക് ചുമ്മാ ഓരോ സാധനങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ട് ചെറിയ ചെ സ്റ്റാച്ചൂകൾ അങ്ങനെയൊക്കെ ഇപ്പം ഇങ്ങനെ ഇന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കിപ്പോഴും നല്ലതാണ്